രാഷ്ട്രീയ വീക്ഷണത്തിലൊക്കെ ഇപ്പോൾ കേരളം നേരിടുന്ന പ്രശ്നങ്ങള് അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള് നമുക്ക് രാഷ്ട്രീയക്കാരുടേന്ന് നമ്മൾ നേരിടുന്നുണ്ട് കാരണണ് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചോദിക്കുന്ന സമയത്ത് ടൈമില് മാത്രാണ് ഇവര് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കാല് പിടിക്കുന്ന പോലെ പിന്നെ ഓരോന്ന് പറഞ്ഞു നമ്മളെ അവരെ വലേലാക്കി ലാസ്റ്റ് നമ്മളവർക്ക് കൊണ്ടു പോയി വോട്ട് കുത്തും പക്ഷെ നമ്മളോട് പറയും ഇങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങള് ചെയ്തു തരാം ഇപ്പോൾ വീടില്ലാത്തവർക്കാണെങ്കിൽ വീട് ചെയ്ത് തരാം അല്ലെങ്കില് പശുത്തൊഴുത്തില്ലാത്തവർക്ക് പശുത്തൊഴുത്ത് പിന്നെ ഇപ്പം വീടിനു മേൽക്കൂര എന്തെങ്കിലും പ്രശ്നം ഉള്ളതാണെങ്കിൽ മേൽക്കൂര എല്ലാം ചെയ്തു താരാന്നവര് പറഞ്ഞിട്ടാണ് നമ്മളപ്പം അവരെ വിശ്വസിച്ച് പോവും അവര് ജയിച്ചിട്ടുണ്ടെങ്കി നമുക്ക് ഇങ്ങനൊക്കെ ചെയ്തു തരുല്ലോ എന്നുള്ളൊരിതില് നമ്മള് വിശ്വസിച്ചിട്ട് നമ്മക്ക് നമ്മളവരെ വോട്ട് ചെയ്ത് നമ്മള് വിജയിപ്പിക്കും പിന്നെ നമ്മളെ കണ്ടാപ്പോലും അവര് മൈൻഡാക്കാത്ത അവസ്ഥയും നമ്മക്ക് നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പിന്നെ ചെയ്യാത്തൊരവസ്ഥയും വരും അപ്പന്നു വെച്ചിട്ടുണ്ടെങ്കി വോട്ട് ചെയ്ത നമ്മളെ മണ്ടന്മാരാക്കുന്നതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങള് വികസനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഒരുപാട് വികസനം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് മെയിനായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആ നടുവിലുള്ള ആ ഒരു കളികൊണ്ടാണ് പിന്നെ അപ്പന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി മെയിനായിട്ട് ഒര് അഴിമതി പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അഴിമതിയാണ്